പതിനഞ്ച് അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി അറുപത്ത്രണ്ട് പത്ത് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് മുപ്പത് പന്ത്രണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊൻപത് പതിനാറ് പത്ത് രണ്ടായിരത്തി പതിനാറ് മുപ്പത്തൊന്ന് ഏഴ് രണ്ടായിരത്തി പതിനേഴ്